നമ്മളെ പോലെ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിത്തി പത്ത് ജീവിച്ച പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് നമ്മള് ജീവിക്കുന്നത് അന്ന് നോക്കിയേൻ്റെ ഫോണാണെങ്കിൽ ഇപ്പം സ്മാർട്ട് ഫോണുകളാണ് പണ്ട് കമ്പ്യൂട്ടറാണെങ്കിൽ ഇപ്പം ലാപ്പാണ് ടാബാണ് അങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറി അപ്പം പിന്നെ സാങ്കേതിക വിദ്യയിലും അതേപോലെ മാറ്റങ്ങള് എല്ലാം എന്താപ്പം എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുക എല്ലാം ഉണ്ട് പണ്ട് ചില വീട്ടില് ചില ടി വി ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാ വീട്ടിലും ടി വി എ സി പിന്നെ സ്പോൺ ഫോണുകള് എവിടെ വേണമെങ്കിലും ഇരുന്ന് ആരെ വേണമെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം എവിടെ വേണെങ്കില് ഇരുന്ന് ആർക്ക് വേണേലും നമുക്ക് പൈസ അയച്ചു കൊടുക്കാം എന്ത് കാര്യങ്ങളും നമുക്ക് കാണാം ചെറിയ മക്കളുടെ അടുത്ത് വരെ ഫോണായി ഇത് ഇപ്പം നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് വലിയ രീതിയില് ബാധിച്ചില്ലേ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയില് എനിക്ക് നല്ല കാര്യങ്ങളാണ് ഉണ്ടായേക്കുന്നത് നമുക്ക് എൻ്റെ കെട്ടിയോൻ ഗൾഫിലൊക്കെ ആണെങ്കില് ഓർക്ക് പൈസ അയച്ചു തരണമെങ്കില് എന്ത് ബുദ്ധിമുട്ടാ ഓര് വരാൻ പറ്റില്ലല്ലോ പിന്നെ ഓരെ കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണില് വീഡിയോ കോള് ചെയ്യാം ഓർക്കും കാണാൻ തോന്നുമ്പോൾ വീഡിയോ കോള് ചെയ്യാം പണ്ട് നമ്മള് കത്തെഴുതണമായിരുന്നു ഇപ്പം കത്തൊന്നും എഴുതണ്ട നമുക്ക് അവ അവരെ കാണണം തോന്നുമ്പോ കാണാ പെയ്സെൻറ അത്യാവശ്യം ഉണ്ടെങ്കില് ഓരെ വിളിക്കാം ഇപ്പം എവിടെ എങ്കിലും ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി വെച്ചോ അന്നൊക്കെ നമ്മളാരെങ്കിലും പറഞ്ഞുവിട്ടവരെ വിളിച്ചോണ്ട് വരണം ഇപ്പം അങ്ങനെയല്ല നമുക്ക് ഫോൺ വിളിച്ചിട്ട് ഇന്ന കാര്യം ഇങ്ങനെയാന്ന് പറഞ്ഞു അതാണ് വളരെ നല്ല രീതിയിലാണ് നമ്മളെ ബാധിച്ചിട്ടുള്ളത്